കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണെ അപ്പം നമ്മള് പിന്നെ ഒരു ഒരാഴ്ചത്തേക്ക് കേരളത്തിലേക്ക് സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ അവിടെ സീ ഫുഡ് പിന്നെ ഐറ്റംസൊക്കെ കിട്ടുന്ന പിന്നെ ഫേമസായിട്ടുള്ള പിന്നെ റെസ്റ്റോറന്റുകള് ഹോട്ടലുകള് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ആ അല്ല സീ ഫുഡിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പിന്നെ ബാക്കി ഫുഡൊക്കെ വേണം അല്ല സീ ഫുഡിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങള് ഒക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ആണല്ലേ ഹാ ഹാ ഹാ

അപ്പോൾ ഇതൊക്കെ നമ്മള് പിന്നെ ഓ പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്യണോ അതോ നമുക്ക് നേരിട്ട് വന്നാൽ കിട്ടുവോ എങ്ങനെയാണ് കൊച്ചിയിലാണല്ലെ മെയിനായിട്ട് നിങ്ങള് നമുക്ക് അതായത് പിന്നെ സീ ഫുഡ് അല്ലാണ്ട് വേറെ ഫുഡൊക്കെ അതായത് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഏതെങ്കിലും സ്ഥ സ്ഥലമുണ്ടോ ആ നമ്മള് വറുവാണെങ്കില് നിങ്ങൾക്ക് നിങ്ങള് തന്നെ ഞങ്ങൾക്ക് അതായത് താമസ സൗകര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡി ആക്കി തരുവോ ആ നമ്മള് ഫാമിലി ആയിട്ട് വരുന്നത് അപ്പോൾ ഒരു മൂന്ന് കുട്ടികളും ഉണ്ട് അച്ഛനും അമ്മയും അങ്ങനെയാണ് വരുന്നത് അങ്ങനെയാണേൽ ഞങ്ങള് വരുന്നതിന് ഒരു ആ മൂന്ന് നാല് ദിവസം മുൻപേ വിളിച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ ഞങ്ങൾക്ക് താമസ സൗകര്യമെല്ലാം റെഡി ആക്കി തരുവോ അങ്ങനെയാണെങ്കില് നിങ്ങളുടെ കൂടെയുള്ളൊരു ഗൈഡുണ്ടെങ്കിൽ നമുക്ക് അതായത് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തരാൻ പറ്റുവോ ആണല്ലേ ആ അങ്ങനാണേൽ നിങ്ങള് സീറ്റ് ബ്ലോക്ക് ചെയ്തോ ഞങ്ങളെന്തായാലും വരും ആ രണ്ട് റൂമാണ് വേണ്ടിയത് ഓക്കെ ഓക്കെ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ നിങ്ങളുടെ റേറ്റൊക്കെ ഇട്ടാൽ ആ ഓക്കെ ഞങ്ങള് വരുന്നേനൊരു നാല് ദിവസം മുൻപേ വിളിച്ച് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ഓക്കെ താങ്ക്യൂ